ആ ഹലോ അതെയല്ലോ ഇതാരാണ് സംസാരിക്കുന്നത് ശരി എന്തായിരുന്നു കാര്യം ആ പറഞ്ഞോളൂ എന്താ പ്രശ്നം

ഓ ആ ശരി ഇതിൻ്റെ പത്ത് സെൻ്റ് സ്ഥലം നിങ്ങളെ പേരിൽ തന്നെയാണോ ഇതിൻ്റെ നമ്മുടെ കരം അടച്ച റെസീറ്റുണ്ടോ ശരി അപ്പം ഈ മതിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഒരു കല്ലിട്ടതായിരുന്നു അവർ മതിൽ കെട്ടി കയ്യേറി നിങ്ങളവിടെ ഇല്ലാത്ത സമയത്ത് അല്ലെ

ശരി ശരി അല്ല നിങ്ങളിത് പോലീസിൽ വല്ലതും അറിയിച്ചിട്ടുണ്ടോ ശരി പോലീസിലറിയിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ എൻ്റെ ഫീസിൻ്റെ കാര്യം എന്നു പറയുകയാണെങ്കിൽ ഒരു സിറ്റിങ്ങിന് പത്തായിരം രൂപയാണ് വരിക നമ്മക്കിത് നമ്മൾക്കിത് കേസ് മൊത്തം ഒരഞ്ച് മുതൽ ആറ് സിറ്റിങ്ങിൽ തീർക്കേണ്ടി വരും കേട്ടോ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളൊരു പത്ത് ശതമാനം ഡിസ്ക്കൗണ്ടാണ് കൊടുക്കാറ് പൊതുവേ അതായത് നിങ്ങളിപ്പം ഒരു മൊത്തം മൊത്തം തുകയിൽ നിന്നും ഒരയ്യായിരം രൂപ ഇളവ് വരുമായിരിക്കും മൊത്തം സിറ്റിങ്ങിൽ നിന്നും ശരി നമ്മൾക്ക് സംസാരിക്കാം നിങ്ങൾ നാളെ ഫ്രീ ആണോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഓഫീസിലേക്കൊന്നിറങ്ങ് എൻ്റെ ഓഫീസ് മേലേ ചൊവ്വ മലബാർ ഗോൾഡിൻ്റെ അടുത്തായിട്ട് വരും നമ്മൾക്ക് സംസാരിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ അതിനനുസരിച്ച് തീരുമാനിക്കാം ശരി ശരി